ഹലോ വയനാട് ജില്ലയിലെ ഗൈഡ് ആയിരുന്നു ഇപ്പോൾ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ വെയിൽ ഓ എല്ലാം അവൈലബിൾ ആണ്

ട്രക്കിങ്ങിന് നല്ലതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പം ബ്രഹ്മഗിരി മലേൻ്റെ മുകളിലേക്ക് വണ്ടികൊണ്ട് കയറാൻ പറ്റില്ല നടന്നേ പോവാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ മേലേക്ക് നമുക്ക് കയറിക്കഴിഞ്ഞാൽ ബ്രഹ്മഗിരി മലേൻ്റെ മേലെയൊക്കെ കയറാം പിന്നെ വേറെ ഉള്ളത് ചെമ്പ്രയിൽ കയറാം ചെമ്പ്ര പീക്ക് ഇല്ലേ മേപ്പാടി ആ അതുതന്നെ ആ അതുതന്നെ അതുതന്നെ നമ്മുടെ അവിടേക്ക് പോവാൻ പറ്റും പിന്നെ സൂചിപ്പാറ വാട്ടർഫാൾസ് പിന്നെ അല്ലാത്ത രീതിയിൽ പിന്നെ ഡാം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം ഓപ്പൺ ആണ് പിന്നെ കുറുവാദ്വീപ് ആ കുറുവാദ്വീപ് കുറവാദ്വീപിൽ പോയിട്ടുണ്ടോ ആ അവിടെയും കുഴപ്പമില്ല അവിടെ ഇപ്പോൾ ഓപ്പൺ ആണ് ഈ ഇടയ്ക്ക് അടച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഓപ്പൺ ആയി ഇപ്പം മഴയങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് റിസോർട്ടുകൾ റെഡി ആക്കിത്തരാം ഫുഡ് കാര്യങ്ങളെല്ലാം ആ ആ അതെ അപ്പോൾ ഫുഡ് കാര്യങ്ങളെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തോളും നമുക്കിപ്പോൾ ഓ അത് കുഴപ്പമില്ല ഞങ്ങൾ റെഡി ആക്കിത്തരാം എല്ലാം ഞങ്ങൾ തന്നെ സെറ്റ് ആക്കിതരാം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് ഒന്നോ രണ്ടോ ദിവസമേ കയറാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്ത് ഒരു ദിവസം റെഡി ആക്കിത്തരാം പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങൾ എവിടെയാണോ കയറാൻ പോവുന്നത് അതിന്റവിടെ ഫുഡ് കാര്യങ്ങളും പിന്നെ നിങ്ങളുടെ താമസ സൗകര്യം എല്ലാം റെഡി ആക്കി തരാം ഒരു നാലഞ്ച് ദിവസത്തിന് മുകളിലെടുക്കും അഞ്ച് ദിവസത്തിന് മുകളിലെടുക്കും എന്തായാലും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബ്രഹ്മഗിരി കയറണമെങ്കിൽ ഒരു ദിവസം എന്തായാലും മിനിമം വേണം കാരണം ആ കുറച്ച് നടക്കാൻ ഉണ്ട് മലേൻ്റെ മുകളിലേക്ക് അല്ലേ അപ്പോൾ അവിടേക്ക് നടക്കാൻ എന്തായാലും ഒരു ദിവസത്തിന് മേൽ അവിടെ എട്ടരയ്ക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു ഉച്ച കഴിയും അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് സമയം എന്തായാലും പോവും പിന്നെ കയറാനുള്ള സ്ഥലം ഉണ്ടാവില്ല സമയം ഉണ്ടാവില്ലല്ലോ പിന്നെ അടുത്ത സ്ഥലം ഒക്കെ എന്തായാലും ക്ലോസ്ഡ് ആവും ആ അപ്പോൾ അതും എന്തായാലും ആ കോൺടാക്റ്റ് ചെയ്താൽ മതി എന്നാണ് വരുന്നത് ഇയാൾ എന്നാണ് വരുന്നത് ഓക്കെ ഓക്കെ എന്നാൽ നിങ്ങൾ എന്നാൽ ഒന്ന് ആ അഡ്വാൻസ് ഒരു അയ്യായിരം രൂപ മതി ഓക്കെ എന്നാൽ ശരി